ആ എസ് അതെയതെ അതെ

അതെയതെ അതെയതെ ആ മിസ്റ്റർ മിസ്റ്റർ ദീപക്ക് ദീപക്കല്ലേ ആ ദീപക്ക് ഗുഡ് ഈവനിങ് നമസ്കാരം ദീപക്കിനെപ്പോലുള്ളൊരാൾ വിളിക്കുമ്പോൾ ഞാനെങ്കിലും മിസ്സാക്കുമോ ഒരിക്കലും ഞാനത് ആ കോള് ഞാൻ മിസ്സാക്കത്തില്ല നമ്മൾ ഷൂട്ടിങേക്കെ കഴിഞ്ഞൊരു ചെറിയൊരു ഇൻറ്റർവെല്ലാണ് നമ്മളൊരു ആ അതെയതേ കറക്റ്റ് സമയത്താണ്

ഓക്കെ ഓക്കെ ഓക്കെ അതിന് ദീപക്ക് സമയംക എപ്പം വേണേച്ച ഞാൻ ഞാൻ റെഡിയല്ലേ ദീപക്കങ്ങനെയല്ല ദീപക്കെന്ന് വിളിച്ച് കഴിഞ്ഞാലും ഞാൻ എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും ഞാൻ ദീപക്കിൻ്റെ ഫോൺ അറ്റൻറ്റ് ചെയ്തിരിക്കും അത് ദീപക്ക് എങ്ങനെ നമുക്ക് ഒഴിച്ചൂടാൻ പറ്റാത്തൊരു വ്യക്തിയാണല്ലോ ദീപക്കിനെ സംബന്ധിച്ചെടുത്തോളം എൻറ്റൊരു ഫാനാണെന്നെനിക്ക് അറിയാമെങ്കിൽ പോലും എൻ്റെയെല്ലാ സിനിമകളുമൊക്കെ ദീപക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നുണ്ടെന്ന് ഞാനറിയുന്നുണ്ട് കൂടാതെ നമുക്ക് നല്ലൊരു ഫാൻ വലയങ്ങൾ തന്നെ ദീപക്കൊണ്ടാക്ക് നമ്മുടെ സിനിമകളൊക്കെ ഹിറ്റാകുന്നത് തന്നെ ദീപക്കിൻറ്റേയും കൂട്ടാളികളുടെയൊക്കെയുള്ള സംയുക്തമായിട്ട് ഒരിടപെടൽ കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം ഞാൻ മലമുകളിലെ കാക്കക്കൂട് എന്നുള്ളൊരു സിനിമയാണ് ഇപ്പം പുതിയതായിട്ട് ഷൂട്ടേയ്തോണ്ടിരിക്കുന്നു മലമുകളിൽ അതെയതെ മലമുകളിൽ നമുക്കറിയാല്ലോ മലമുകളിലെ കാക്കക്കൂടെന്ന് പറയുമ്പോൾ കാക്ക തന്നെ മലമുകളിലെത്തിപ്പെടുവാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് മലമുകളിൽ മരങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഈ കാക്കതന്നെ വന്നിട്ട് ഒരു മരം ഒരു വിത്ത് കൊണ്ട് വന്ന് അവിടെ കുഴിച്ചിടുകയും കുഴിച്ചിടുകയും കുഴിച്ചിട്ട് കിളിർത്ത വന്ന് അത് കാക്ക ഓരോ ദിവസോം വെള്ളം കൊണ്ടന്ന് മരത്തിന് ചുവട്ടിൽ ഒഴിച്ച് ആ മരം വലുതാക്കി വലുതാക്കിയതിന് ശേഷം ആ മരത്തിന്ന് മണ്ടക്ക് കാക്ക മുട്ടയിട്ട് കൂട് കൂട്ടുന്ന അങ്ങനെയൊരു സിനിമാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തോണ്ടിരക്കുന്ന ആ നീനക്ക് ഇതൊക്കറിയാല്ലോ എപ്പോഴും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളും കഥകളുമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ കഥയാണ് നമ്മൾ ഇപ്പോൾ രൂപകൽപ്പന ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഇതിൽ കാക്കേടെ രൂപത്തിലാണ് എനിക്ക് എൻ്റെ ഈ തോനെ അഭിനയിക്കാനായിട്ട് അവസരം കിട്ടിയിരിക്കുന്നത് ഇതിൽ മെയിനായിട്ട് ഒരു മെയ്ൻ കഥാപാത്രം കാക്കയാണ് അപ്പോൾ കാക്കയായിട്ടാണ് ഞാൻ ഇതിൽ അഭിനയിക്കുന്നത് കാക്ക കടലിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് വന്ന് അതെയതെ പറക്കും തളികായെന്ന ആവൊരു കഥാപാത്രത്തെ അനുസ്മരിച്ച് കൊണ്ട് കാക്കയെപ്പോലെ പറന്ന് കടലീപ്പോയി വെള്ളമെടുത്ത് മലയുടെ മണ്ടേക്കൊണ്ടോയി ഒഴിച്ച് അവിടെ വിത്ത് പാകി കിളിപ്പിച്ച് മരം കിള്പ്പിച്ച് വലുതാക്കി അതിന് മേളിൽ കൂട് കൂട്ടുന്ന ഒരു പറക്കുന്ന ജീവിയായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് ആ ദീപക്ക് തീർച്ചയായിട്ടും ഈ സിനിമാ കാണണം ഇത് ഷൂട്ടിംഗ് നടന്നോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ പകുതി സമയമേ ആയിട്ടുള്ളു ഇനി ഒത്തിരിയേറെ

ഉണ്ടൊണ്ട് തീർച്ചയായിട്ടും അതെന്നെ ഈ കാക്ക മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകും

അതെയതെ മിലിട്ടറി പ്രൊഫെഷനെന്ന് പറയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ നമ്മൾ സുവെയ്ദാ സുവെയ്ദാർ മേജറായ്ട്ടാണ് നമ്മൾ റിട്ടേട് ചെയ്തത് സുവേയ്താൻ ഞാൻ ഷോ ടൈമാണ്ട് സർവീസസ് ചെയ്തത് അതായത് ബി ആർ എസ്സെന്നൊള്ള സിസ്റ്റം നമുക്കുണ്ടല്ലോ അങ്ങനെ ഷോ ടൈമായിട്ട് ഞാൻ ഞാൻ ബി ആർ എസ് എടുത്തതിന് ശേഷം നാട്ടിൽ വരികയും ആ സിനിമായിട്ടുള്ള അത്യതികമായിട്ടുള്ള താൽപ്പര്യം കൊണ്ട് ഞാൻ സിനിമാ ഫീൽഡിലേക്ക് വരുകയാണ് ചെയ്തത് ഞാൻ മിലിട്ടറി ജോലി ചെയ്തോണ്ടിരുന്ന സമയത്ത് തന്നെ ഒത്തിരിയേറെ സിനിമകൾ കാണുകയും ചെറിയ ചെറിയ ഷോട്ട് ഫിലിമ്കൾലൊക്കെ അഭിനയിക്കാനും എൻ്റെ സമയം വിനിയോഗം ചെയ്തിട്ടുണ്ട് ആ പിന്നെ ഞങ്ങൾക്ക് വീണ് കിട്ടുന്ന സമയങ്ങൾ ഞങ്ങൾ ഇൻഡ്യ പാക്കിസ്ഥാനുമായിട്ടുള്ള യുദ്ധങ്ങളും അത് കണക്കുള്ള സമയങ്ങളിൽ ഞങ്ങൾക്ക് എന്ത് ഇടക്ക് ചെറിയ ബ്രേക്ക്കൾ കിട്ടും ബോംബ് പൊട്ടി നമ്മൾ ബോംബ് ഉണ്ട ഇതിനകത്തിട്ടിട്ട് അവിടെച്ചെന്ന് പൊട്ടാനുള്ളൊരു സമയമുണ്ടല്ലൊ അത്രയും സമയങ്ങളിൽ ഇത് ഉണ്ട ഈ തോക്കിനകത്തിന്ന് പോയി പാക്കിസ്ഥാനീപ്പോയി പൊട്ടാനുള്ള സമയംകൊണ്ട് ഒരു ചെറിയ ഷോട്ട് ഫിലീം ഒക്കെ നമ്മളാ സമയംകൊണ്ട് കാണുന്നോരിതാണ് അത് ഒരു സമയം ഒരു സെക്കൻറ്റ് പോലും വേസ്റ്റാക്കാതെ നമ്മടെ സിനിമയോടുള്ള ആ ഒരു ആഭിമുഖ്യവും സ്നേഹവും കൊണ്ട് ഉണ്ട പൊട്ടാനുള്ള സമയത്ത് പോലും നമ്മൾ സിനിമ കാണുന്ന ഒരു അനുഭവമൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യൂ താങ്ക് യൂ ഇനി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനിയെപ്പോൾ എപ്പോൾ വേണേലും വിളിക്കാം കുഴപ്പമൊന്നും ഇല്ല ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഫോൺ എടുത്ത് കൊള്ളാം കേട്ടോ ബൈ ചാൻസ് കിട്ടിയില്ലേ വീണ്ടും വിളിക്കുക താങ്ക് യൂ